ദൈനംദിന ജീവിതത്തിൽ നമ്മളുപയോഗിക്കുന്ന പ്രധാനമായിട്ടുള്ള ചില കാര്യങ്ങൾ ഒന്ന് എവിടേക്കാണ് പോകുന്നത് എവിടെ നിന്നു വന്നു എന്താണ് നിങ്ങൾ ഇനി ചെയ്യാനുദ്ദേശിക്കുന്നത് അവരെപ്പോഴാണ് വരിക നിങ്ങളെന്താണ് നേരം വൈകിയത് എപ്പോഴാണ് നമ്മുടെ ഓഫീസ് ക്ലോസ് ചെയ്യുക നീ എവിടെ പോയതായിരുന്നു നീ എന്തേ എന്നെയും വിളിക്കാതിരുന്നത് ഞാൻ ഇന്നലെ വൈകിയിട്ടാണ് ഇവിടെ എത്തിയത് എനിക്ക് വല്ലാത്ത പ്രയാസങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് അമ്മേ ഇതെങ്ങനെയാണ് ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ എങ്ങനെ തീർക്കുക ചായയായും ചോറായും ചോറുണ്ട് ചായയുണ്ട് കുളിക്കാൻ പോയിട്ടുണ്ടവൻ കുളിച്ചു വന്നു നീ പല്ല് തേച്ചോ പല്ലു തേച്ചിട്ട് വരാം കളിക്കാൻ പോയിട്ടുണ്ടല്ലോ കളിച്ചു വരുന്നുണ്ടാകാം ചായ കുടിക്കട്ടെ ഒരു ചായ എടുത്താലോ നല്ല കടിയുമുണ്ട് പിന്നെ വൈകുന്നേരം നമുക്കവിടെ കുളിക്കാൻ പോകും വൈകുന്നേരം നമുക്ക് സഹ സഞ്ചാരത്തിനും സ്വാ സഫാരിക്കിറങ്ങും അത്ര